തെക്ക് പ്രദേശങ്ങളെ സംബന്ധിച്ച് പടയണീന്ന് പറയുന്നത് നീലം പേരൂർ പടയണീന്നക്കെ പറയുന്നത് ഭയങ്കര ആഘോഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇപ്പം അന്യം നിന്ന് വന്നോണ്ടിരിക്കുകയാണ് ലൈക് ഇൻറസ്റ്റഡ് മേഖല ഒൺലി ഇൻസ്റ്റഗ്രാമബൾ റീൽസിനും ഫോട്ടോഗ്രഫി ആൾക്കാർക്കും അല്ലെങ്കിലത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരുവാണെങ്കിൽ അവർക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി അല്ലാതെ നമ്മുടെ കൾച്ചറാണ് നമ്മുടെ ഒരു രീതിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക പാരമ്പര്യം ആണെന്ന് പറഞ്ഞിട്ട് ആരും അതിനെ സംരക്ഷിക്കാനോ അത് തുടർന്ന് പോവാനോ ഇന്നങ്ങനെ ആരും എഫോട്ടെടുക്കാറില്ല അതായത് പടയണീ രൂപം എന്താ പടയണീ ഇത് പ്ലേ ചെയ്യുന്ന ആൾക്കാരെപ്പോലും ഇപ്പം അത് ട്രാ അത് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനായിട്ടൊരു ടൈമ് കണ്ടെത്താനോ കാരണം ഇപ്പം എല്ലാവരും കുറച്ചും കൂടി മിനിമലായിട്ടുള്ള അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറി കാണാം പടയണീ പടയണി ആണെങ്കിലും നോർത്ത് കേരളേയിലുള്ള തെയ്യം പോലത്തെ കലാരൂപങ്ങളാണെങ്കിലും എന്താ പറയുക കുറച്ച് മിത്തോളജിക്കലാണ് അപ്പം അതിൽ ലോജിക്കില്ല അങ്ങനെ ഒക്കെ ഒരു ചിന്താഗതിയിലേക്ക് ആൾക്കാർ കുട്ടികളാണെങ്കിലും ആൾക്കാരാണെങ്കിലും അതിലേക്ക് വന്നു അല്ലെങ്കിലതിനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ക്രാഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഈ പടയണീയും എന്താ തെയ്യത്തിനേം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഒരുവിധം കരകൗശല വസ്തുക്കൾ അല്ലെങ്കിൽ ഹാൻ ക്രാഫ്റ്റിംഗ് രീതികൾ തന്നെ നിലനിന്ന് പോന്നിരുന്നത് അതൊരു തൊഴിലവസരം കൂടിയായിരുന്നു ആ ഓരോ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊരു തൊഴിലവസരം കൂടിയായിരുന്നു ഈ ഹാൻ ക്രാഫ്റ്റിങും കാര്യങ്ങളുവൊക്കെ ഇപ്പം പടയണിക്കാണെങ്കിലും അതിന് കുതിരകളും അല്ലെങ്കിലതിനുള്ള കോലങ്ങളും ആൾരൂപങ്ങളുമെല്ലാം ആൾക്കാർ അത് ഹാൻഡിലാണ് ചെയ്തോണ്ടിരുന്നത് കളറ് വരെ ഹാൻ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കളറുകളായിരുന്നു അത് അതാ ഹാൻ ക്രാഫ്റ്റുല് ഫോളോ ചെയ്ത് വന്നിരുന്ന കൈത്തഴക്കം വന്ന് എന്താ പറയുക ശിൽപ്പികൾക്ക് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു തൊഴിലവസരമായിരുന്നു സത്യം പറഞ്ഞാൽ പടയണീന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ഒരു ആഘോഷമായിരുന്നു തെയ്യോം അതേപോലെ തന്നെ തെയ്യം മിത്തോളജിക്കൽ സ്റ്റോറി ബേസ്ഡ് ആണെങ്കിലും ഒരൂ ടെംപിൾ റിലേറ്റഡ് കൾച്ചറല്ലെ ആർട്ട് ഫോമാണെങ്കിൽ പോലും പടയണി അതേപോലെ ആർട്ട് ഫോം ആണെങ്കിൽ പോലും മതമോ ജാതിയോ ഒന്നും നോക്കാതെയായിരുന്നു അതിൻ്റെ ആർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ഹാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ലേബേസിന് അതിൻ്റെ ഓരോ ചമയങ്ങൾ അതിൻ്റെ മുഖങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ രൂപങ്ങൾ വർണങ്ങൾ ആ റെഡ് ആൻഡ് ഓറഞ്ച് ആ കുമ്മായങ്ങളുണ്ടാക്കുന്നത് അതൊക്കെ ഓരോ ഒരു ഇതായിരുന്നു ഒരു ഹാൻ ക്രാഫ്റ്റിങിനൊരു തൊഴിലവസരം കൂടി ആയിരുന്നു പക്ഷേ ഇന്ന് അതത്ര സംരക്ഷിക്കപ്പെടുന്നൊന്നുമില്ല നമുക്ക് ഒരുപാട് ഓർഗനൈസേഷനുകൾ അസോസിയേഷനുകളെക്കെ ഉണ്ട് കൾച്ചറ് ഇതാക്കാനും കൾച്ചറ് പ്രൊ ഇത് ചെയ്യാൻ വേണ്ടീട്ടൊക്കെ പക്ഷേ അതങ്ങനെ എന്താ പറയുക ആൾക്കാർ അതിനെ അങ്ങോട്ട് ഇതാ ബ സംരക്ഷിക്കാൻ വേണ്ടിയൊരു എഫേർട്ടിടുന്നില്ല കൾച്ചറ് ഇൺ കൾച്ചറ് ക സംരക്ഷിക്കപ്പെടുന്ന ഓർഗനൈസേഷനുകളുണ്ടെങ്കിലും ഈ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് ഒരു ഇതിലേക്ക് ഒരു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ടൂറിസ്റ്റിനെ അട്രാക്ററ് ചെയ്യാൻ ടൂറിസ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ എന്ന എന്ന ഒരു രീതീലേക്ക് മാറി